അ ആരാണ് വിളിക്കുന്നത് അ അതെ അതെ ആ ഞങ്ങൾക്ക് ഇവിടെ പാൽ നെയ്യ് വെണ്ണ തൈര് പിന്നെ പാൽ കൊണ്ടുള്ള എന്ന ഷേയ്ക്ക് പിന്നെ ഇത് ജൂസ്സ് പോലത്തെ സാധനം മിൽക്ക് ഷേയ്ക്ക് ഇങ്ങനെ കുപ്പിയിലാക്കി വിൽക്കത്തില്ലെ അങ്ങനത്തെ സാധനങ്ങൾ എല്ലാമുണ്ട് എല്ലാം നല്ല ഇതായിട്ട് ഇവിടെ നല്ലപോലെ സെയിലുള്ള സ്ഥലമാണ് അപ്പോൾ എന്താണ് അവശ്യം ആണ് ഉറപ്പായിട്ടും ആണ് ഇവിടെ ഓക്കെ ആ അത്രയും പാട് ചെയ് ആ അത്രയും പാടവായത് കാരണം ഞങ്ങൾക്ക് സുഖമാണ് പറയുന്ന സ്ഥലത്ത് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനമുണ്ട് വാഹനത്തിൽ പറയുന്ന സലത്ത് എത്തിച്ചിരിക്കും എപ്പം വേണം എന്നു പറഞ്ഞാൽ മതി ഏതു സമയം തൈര് തൈര് തൈരും ഉണ്ട് അത്രയും ഉണ്ട് ഉം ആ അങ്ങോട്ടൊക്കെ ഞങ്ങളെ ഇവിടെ നി ന്ന് വാഹനങ്ങൾ വാഹനങ്ങളൊക്കെ സെർവ്വ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം അഡ്രസ്സ് വാട്സപ്പിൽ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഞങ്ങളുടെ ആൾക്കാർ കൊണ്ടുവന്നു എന്നിരിക്കും അങ്ങനെയുണ്ട് എപ്പം വേണമെങ്കിലും വന്നാൽ ഞങ്ങളുടെ ഫാം സന്ദർശിക്കാം നല്ല വൃത്തിയും വെടിപ്പുമുള്ളത് കൊണ്ട് ആർക്കും എപ്പം വേണമെങ്കിലും സന്ദർശിക്കാം ഒരു വിഷയവുമില്ല പറഞ്ഞാൽ മതി എപ്പോൾ വരുമെന്ന് അപ്പം എത്ര പേര് വരുമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾ അവിടെ നിങ്ങളെ വയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും മാറ്റിവെ മായം ചേർക്കുകയായിരുന്നെങ്കിൽ മായം ചേർക്കുകയയിരുന്നെ മേടം ഞങ്ങൾ ഇത്രയും നാൾ വർഷങ്ങളായിട്ട് ഇത്രയും പത്ത് ഇരുപത് മുപ്പത് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം പണ്ടേ പൂട്ടിപ്പോകുകയില്ലെ നല്ല സ്ഥാപനം ആയതുകൊണ്ടാണ് ഇന്നും അത് ഡിമാൻ്റോടെ ആ കടകൾ മുഴുവൻ ആൾക്കും സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് വന്നോള്ളു ഇന്ന് വന്ന് വൈകിട്ട് തന്നെ വന്നോളൂ ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണ്

ഓക്കെ നേരിട്ട് കണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചോളു ഞങ്ങൾ തയ്യാർ റെഡി ഓക്കെ